ഹലോ ആ അതേല്ലോ ആരായിരുന്നു വിളിക്കുന്നത് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ അതെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഉണ്ട് റേറ്റ് നമുക്ക് പലതാണ് നമുക്ക് അതിവിടെ അത് ബട്ടർഫ്ളൈടെയുണ്ട് സാംസങ്ങിൻ്റെ ഉണ്ട് എൽ ജീടെ ഉണ്ട് ആ എല്ലാം കമ്പനി ഐറ്റങ്ങൾ തന്നെയാണ് ഉള്ളത് കുറഞ്ഞ സാധനങ്ങൾ ഇല്ല നല്ല സാധനങ്ങൾ എല്ലാം വില കൂടിയ സാധനങ്ങളുണ്ട് ആ ജെസ്റ്റിൻ ഏതാണെന്ന് ഷോപ്പിൽ വന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് പല വിലയുടെയാണ് വിലയുടെ റേറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം സാംസങ്ങിൻ്റെ ഒരു പതിനഞ്ച് പത്ത് പത്ത് പതിനഞ്ച് അങ്ങനെ ഇടക്ക് വില വരുന്നുണ്ട് നമുക്ക് നമുക്ക് ഒരു രണ്ട് വർഷം വരെ വാറൻറ്റി തരാൻ പറ്റിയ സാധനങ്ങളാണ് ആ പിന്നെ സാംസങ്ങിൻ്റെ ഉണ്ട്

ഓഫർ നമ്മൾ ഇതിന് മാക്സിമം ഡിസ്കൗണ്ടിട്ടാണ് കൊടുക്കുന്നത് കാരണം ഇപ്പം ആ വിഷുവിൻറ്റേക്കെ ഓഫറുകൾ ഉള്ളതു കൊണ്ട് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു എങ്ങനെ പോയാലും ഒരൂ ഫൈവ് തൊട്ട് ട്വൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം അത് നമുക്ക് കിട്ടും ആ ഓക്കെ ഓക്കെ ലോൺ സൗകര്യം നമുക്ക് റെഡിയാക്കി തരാമല്ലോ നമുക്ക് ഇ എം ഐ സൗകര്യം നമുക്ക് റെഡിയാക്കി തരാം അതിന് കുഴപ്പമൊന്നുമില്ല ഉണ്ട് ആ ആ എത്ര രൂപക്ക് എടുക്കും ഏയ് ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇപ്പം നിങ്ങൾ എടുക്കുന്ന സാധനത്തിൻ്റെ ഫിഫ്റ്റി പെർസറ്റേജോ അല്ലെ സെവെൻറ്റി ഫൈവ് പെർസറ്റേജോ വരെ നമുക്ക് ലോൺ തരാൻ മറ്റ് സൗകര്യമുണ്ട് ആ എക്സ്ചേഞ്ച് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നൂറ് രൂപയുടെ ഒരു വസ്തു ഇരുപത്തി അഞ്ച് രൂപക്ക് തന്നാൽ ബാക്കി ലോണായിട്ട് നമുക്ക് ഇട്ട് സാധനം കൊണ്ടു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാവുന്നതാണ് ഹോം ഡെലിവറി ഹോം ഡെലി ഹോം ഡെലിവറി അവൈലബിളാണ് പക്ഷേ കുറേ നമുക്ക് ഇ എം ഐ ഒക്കെ ആണെങ്കിൽ കുറേ ഫോർമാലിറ്റീസൊണ്ട് നമുക്ക് ഇവിടെ അത് നമുക്ക് ഇവിടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതു കൊണ്ട് നിങ്ങൾക്ക് വരാൻ ആ ആ ഹാ വരാൻ പറ്റുവാണെങ്കിൽ വരുവാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ ചെയ്ത തരുന്നതാണ് നമുക്ക് അതിന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ആ ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ഉണ്ടൊണ്ട് നമ്മൾ ഡെലിവറി സൗകര്യം നമ്മൾ റെഡിയാക്കി തരാം ചെയ്ത് തരാം

ആ ഇല്ല ആ ഒരു കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മൾ ചെയ്തു തരാൻ തയ്യാറാണ്

ഓക്കെ താങ്ക് യൂ ഓക്കെ താങ്ക് യൂ ജെസ്റ്റ്ൻ താങ്ക് യൂ ആ പിന്നെ ജെസ്റ്റ്ൻ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇത് ജെസ്റ്റിന് ഇതിൻ്റെ എത്ര കപ്പാസിറ്റീടെതായിരിക്കും വേണ്ടതെന്ന് വല്ല ഒരൈഡിയ ഉണ്ടോ അതെയല്ലേ ആ നമുക്ക് ഇവിടെയിപ്പം നിലവിൽ ഇരിക്കുന്നത് മൂന്ന് കിലോയുടെ വരെ ഉള്ളതാണ് മൂന്ന് കിലോ വരെ ഗ്രൈൻഡ് ചെയ്യാനുള്ള സംഭവമുള്ളതാണ് ഇരിക്കുന്നത് അപ്പോൾ ജെസ്റ്റിന് എന്നാണിത് ആവശ്യമെന്ന് പറയുവാണേൽ നമ്മൾ കറക്റ്റ് ഡേറ്റിൽ നമ്മളത് ഓർഡർ കൊടുത്ത് പർച്ചെ ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് അങ്ങനെ നമ്മൾ ആ അതിന് കുഴപ്പമില്ല ആ എന്നത്തേക്കാണ് വരുന്നത് ഇന്നിപ്പോൾ പതിനാറാം തീയതിയല്ലേ ജെസ്റ്റെൻ എന്ന് വരുമെന്ന് ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് അത് കറക്റ്റാ ഡേറ്റിൽ നമുക്ക് ഓക്കെയാക്കി സാധനം റെഡിയാക്കി തരാവുന്നതാണ് ഓക്കെ ഓക്കെ അതിന് കുഴപ്പമില്ല ജെസ്റ്റ്ൻ ഇരുപതാം തീയതി പോര് ഓക്കെ ഓ ഓ ഓക്കെ താങ്ക് യൂ ഓക്കെ